ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ഒരു ആരാധിക ആണെന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് അധികം മധുരമുള്ള ഐറ്റംസ് ഒന്നും കഴിക്കാൻ വലിയ താൽപര്യം ഇല്ലാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ എനിക്കറിയാം ചിക്കൻ ഐറ്റംസ് ആയാലും അല്ലാതെയും ഞാൻ എല്ലാം ഉണ്ടാക്കാറുണ്ട് പിന്നെ ഈ അപ്പം വരുന്ന വിഭവങ്ങളൊക്കെയുണ്ടല്ലോ അതായത് മധുരപലഹാരങ്ങൾ ജിലേബി ലഡു അങ്ങനത്തെ ഒക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് യൂട്യൂബ് നോക്കിയും എല്ലാ ഭക്ഷണപദാർത്ഥവും ഉണ്ടാക്കി എടുക്കുന്നത് വളരെ എളുപ്പമാണ് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിൽ നോക്കി നമുക്ക് ചെയ്യാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ അത്തരത്തിലുള്ള മധുരപലഹാരങ്ങൾ എനിക്ക് താൽപര്യം ഇല്ലാത്തത് കൊണ്ട് അതായത് അതുണ്ടാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് എന്ന് അല്ല എനിക്ക് അത് ഉണ്ടാക്കാനുള്ള താൽപര്യം ഇല്ല എനിക്ക് കഴിക്കാനുള്ള ഇഷ്ടം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം ആഹാരപദാർത്ഥങ്ങൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം